അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആറു ലക്ഷത്തി മൂവായിരത്തി അമ്പത്തി മൂന്ന് ഏഴു ലക്ഷത്തി അറുപത്തി ഒൻമ്പതിനായിരം പത്തായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒന്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട്